നമുക്കിവിടെ ഭയങ്കര ചൂടാണ് അപ്പം പിന്നെ ഗ്രോ ബാക്ക്സിലൊക്കെ വച്ച് ഒത്തിരി സ്ഥലമൊന്നുമില്ല അപ്പം നമ്മള് മണ്ണ് നിറച്ച് ഗ്രോ ബാഗില് വച്ച് ചീനി ക്യാബേജ് പ അതായത് ചീര പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അത് വളരുന്നുമുണ്ട് വെള്ളമൊഴിച്ചു കൊടുക്കണം കാരണം നല്ല ശക് ചൂടുണ്ട് പക്ഷെ നന്നായിട്ടുണ്ടാവുന്നുണ്ട് അതേപോലെതന്നെ പയർ പിന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മള് വീട്ടിൽ തന്നെ ക്യാബേജ് തക്കാളി ചീര പച്ചമുളക് ബ്രോക്കോളി കോളിഫ്ലവർ ഒക്കെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഗ്രോ ബാഗില് വച്ച് പിടിപ്പിക്കാറുണ്ട്